ഹലോ ആ ഹലോ ഞാനേ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു എനിക്ക് ഇവിടെ നിന്നും ആ അഞ്ചലിൽ പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത് ഞങ്ങളുടെ തോട്ടം കൊറിയത്ത് പള്ളി കുന്നം പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരാൻ പറഞ്ഞിരുന്നത് ഏതാണ്ട് അരമണിക്കൂർ പത്ത് മിനിറ്റ് മതി ഇവിടെത്താൻ അരമണിക്കൂറായിട്ടും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അതെന്താണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുള്ള സാഹചര്യം എന്നെ വിളിച്ച് പറഞ്ഞും ഇല്ല അപ്പം അതാണ് എനിക്കറിയേണ്ടിയത് കാരണം നമ്മളൊരു ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ അല്ലങ്കിൽ നമ്മളൊരു അത്യാവശ്യത്തിന് ഒരു പോകാനായിട്ട് ഏതെങ്കിലും വാഹനം ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരത്യാവശ്യ കേസിനായിരിക്കും അപ്പം നിങ്ങള് വരാം എന്ന് പറയുന്നു നമ്മളത് സ്വീകരിക്കുന്നു നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പം പത്ത് മിനിറ്റ് എത്തേണ്ടിയ സ്ഥലത്ത് നാല്പത്തഞ്ച് മിനിറ്റായിട്ടും എത്താതായപ്പോഴാണ് എനിക്ക് നിങ്ങളെ തിരിച്ച് വിളിച്ചിട്ടും അല്ലങ്കിൽ എന്താണ് നിങ്ങള് വരാത്തത് എന്ന് ഞാനങ്ങോട്ടന്വേഷിക്കരുത് അതേ സമയത്ത് നിങ്ങളിങ്ങോട്ട് വിളിച്ച് പറയേണ്ടതാണ് എനിക്കെന്തെങ്കിലും വണ്ടി വാ വണ്ടിക്ക് തകരാറായി പോയി അല്ലങ്കിൽ ഓട്ടം പോയിട്ട് വരാൻ താമസിച്ചു നിങ്ങള് വെയിറ്റ് ചെയ്യുക അല്ലങ്കിൽ വേറെ ഓട്ടോ പറഞ്ഞ് വിടാം അല്ലങ്കിൽ വേറൊരു ഏർപ്പാടെന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊന്നും നിങ്ങൾ പറഞ്ഞില്ല അപ്പം അങ്ങനെ ഉള്ള ഒരു ആ സാഹചര്യത്തിലാണ് എനിക്ക് നിങ്ങളെ വിളിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ചത് വളരെ അനാസ്ഥ ആയ ഒരു കാര്യമാണ് അതിന് അറിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങക്കൊണ്ട് അത് നമ്മളെ അറിയിക്കേണ്ടതാണ് താമസിച്ചുള്ള വിവരം നിങ്ങള് അറിയിക്കേണ്ടതായിരുന്നു അപ്പ എന്താണെന്ന് അന്വേഷിക്കാനാട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അപ്പം നിങ്ങൾ ഇതുവരെയും പ്രതികരിക്കാത്തതിൻ്റെ പേരിലാണ് തിരിച്ച് ഞാനങ്ങോട്ട് വിളിക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ അറിയിക്കുക അത് എന്താണ് ബുദ്ധിമുട്ടെങ്കിൽ അത് അറിയിക്കുക വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക നിങ്ങൾക്കുള്ള വാഹനത്തിനെന്തെങ്കിലും തടസമുണ്ടെങ്കിൽ അത് പറയുക ഈവക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ഏതായാലും അതിൽ നമുക്ക് ഒത്തിരി സങ്കടവും നിരാശയും രേഖപ്പെടുത്തുകയാണ് ഇനിയെങ്കിലും മേലാലെങ്കിലും ഇതാവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് വാഹനമെന്ന് പറയുമ്പോൾ അത്യാവശ്യക്കാർ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ സൂക്ഷ്മതയും അതിൻ്റെ കൃത്യനിഷ്ടയും പാലിക്കുവാൻ നിങ്ങളും കടപ്പെട്ടവരാണ്